നിങ്ങൾ നിങ്ങളുടെ ദൈനദിന ജീവിതത്തെ കുറിച്ച് ഒന്ന് പറയാമോ പറയാം അതായത് രാവിലെ ഞാൻ ഒരു അഞ്ചര മണിയോടു കൂടി ഉറക്കമെണീറ്റ് എൻ്റെ പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്ത് നേരെ ദേവാലയത്തിൽ വന്നു ദിവ്യബലിയ്ക്ക് പങ്കെടുക്കുതാണ് ആദ്യത്തെ പരിപാടി അത് കഴിഞ്ഞാൽ ഞാൻ ഒരു അര മണിക്കൂറോളം ഒരു എക്സസൈസിന് വേണ്ടി നടന്ന് ശ്രീകാര്യം ജംഗ്ഷൻ വരെ പോയി തിരിച്ച് വരുന്ന ഒരു പതിവുണ്ട് അതിന് ശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു പത്തു മുപ്പത് കോഴികളെല്ലാമുണ്ട് ആ കോഴികൾക്ക് തീറ്റ കൊടുപ്പ് വെള്ളം കൊടുക്കണം അതിൻ്റെ നിലത്തുള്ള അറക്കപ്പൊടി ഇട്ടിരിക്കുന്നതെല്ലാം ഒന്ന് ഇളക്കി മറിച്ചൊക്കെ ഇടുന്ന ഇടുന്ന ജോലി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പം ഞാൻ ഇപ്പോൾ ഗവണ്മെൻ്റ് പ്രെസ്സിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് ചെറിയൊരു പ്രിൻ്റിങ് യൂണിറ്റ് ഉണ്ട് അവിടെ നാല് ജീവനക്കാർ വന്ന് പണിയെടുത്ത് പോകുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ആ സ്ഥാപനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പണികൾ വരുന്നതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നതാണ് ഈ ഒമ്പത് മണിക്ക് ശേഷമുള്ള എൻ്റെ പരിപാടികൾ അപ്പം അത് ഏകദേശം അഞ്ച് മണി വരെ അഞ്ച് അഞ്ചര മണി വരെയുള്ള ജോലി ഉണ്ട് അപ്പോൾ അതിനിടയ്ക്ക് പ്രൂഫ് നോക്കി കൊടുക്കണം ചില അത്യാവശ്യം ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് കമ്പ്യൂട്ടറിലുള്ള ജോലികളുണ്ട് പിന്നെ ബില്ലിങ്ങുണ്ട് കുറേ അധികം കെൽട്രോണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രിൻ്റിങ് വർക്ക് ഉള്ളതുകൊണ്ട് അത് ജി എസ് റ്റി ബില്ലിംഗൊക്കെ ഉള്ളതുകൊണ്ട് ആ ബില്ലിങ്ങിന് പ്രത്യേകം ക്ലർക്കിനെ ഒന്നും വച്ചിട്ടില്ല അതിൻ്റെ ബില്ലിങ്ങെല്ലാം നോക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ ബില്ലെല്ലാം നോക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കണം പർച്ചേസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് സിറ്റിയിൽ പോയി പേപ്പറ് പ്രിൻ്റിങ്ങിന് വേണ്ട മഷി സാധനങ്ങളെല്ലാം എടുക്കേണ്ടിവരും അപ്പം അതിന് വേണ്ടി ഉള്ള സമയം ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ മേക്ക് യൂസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇവിടെ പ്രസ്സിൽ വേറെയുള്ള പണികൾ ചില സ്ഥാപനങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനുള്ള കൊട്ടേഷൻ കൊടുക്കുന്നതും ഞാൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനായിട്ടും നോക്കുന്നത് ഞങ്ങളുടെ കൂടെ എൻ്റെ അമ്മയുണ്ട് അപ്പോൾ അമ്മയുടെ വാർദ്ധക്യ സഹജമായിട്ടുള്ള ഒരു അവസ്ഥ കൂടി ആയത്കൊണ്ട് ഒരു മകൾ കാര്യങ്ങൾ നോക്കുമെങ്കിലും ഏറെക്കുറെ സഹായിച്ചാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകനായിട്ട് സാധിക്കുകയുള്ളു ഒരു നാല് നാലര മണിക്ക് ശേഷം കുറച്ച് വാഴ നട്ടിരിക്കുന്നത് ഉണ്ട് അപ്പോൾ ആ വാഴയ്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാനും അല്പം സ്വല്പം വളം ഇടാനും പിന്നെ കുറച്ച് ചെടിയുണ്ട് ആ ചെടികൾക്ക് ചെടികളെ നമ്മൾ സംരക്ഷച്ചില്ലെങ്കിൽ അവയ്ക്കെല്ലാം എന്തെങ്കിലും പുഴുക്കൾ കയറുക അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വരും ഒരു മാവും പ്ലാവുമെല്ലാം ഉണ്ട് അതെല്ലാം നോക്കുന്നത് വലിയ ഒരു സന്തോഷമാണ് മാത്രമല്ല അതിൽ നിന്ന് അനുഭവം കിട്ടുന്നുണ്ട് വാഴക്കുലയൊക്കെ ഇടക്കിടയ്ക്ക് പുറത്ത് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് അത് ഏറെക്കുറെ നമ്മളോടൊപ്പം താമസിക്കുന്ന ജോലി ചെയ്യുന്ന ജീവനക്കാരും അത് ഉപയോഗിക്കാറുണ്ട് അപ്പം പിന്നീട് വൈകുന്നേരം ഭവനത്തിൽ പ്രാർത്ഥന കുറച്ച് നേരം വായനയും കാര്യങ്ങളും റ്റി വി കാണുന്നു ഏകദേശം ഒരു പത്ത് മണിയോടു കൂടി ഉറങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഇത്രയും സംഗതികളാണ് ഉള്ളത്